ശരിക്കും ഇന്ന് ഇന്ത്യയെ സിനിമാമേഖലകൾ വളരെ വലിയ വിധത്തിലും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് പറ്റും കാരണം പിന്നെ നമ്മുടെ ഫാഷ്യൻ രീതികളെല്ലാം മാറിയിട്ടുണ്ട് നടന്മാരുടെ രീതി കണ്ടൊക്കെ അനുകരിച്ച് തുടങ്ങിയിട്ടുണ്ട് വളരെ ചൂടുള്ള ഒരു സ്ഥലത്തെ വസ്ത്ര ധാരണ രീതികളൊക്കെയാണ്

അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോളും സ്ത്രീകളിൽ സർവ്വസാധാരണയായി മാറിയ അതിപ്പം കണ്ടാൽ ആരും ആകാംക്ഷയോടും ആകർഷത്തോടെയൊന്നും നോക്കാനായിട്ടൊന്നും ഇല്ല കാരണം എല്ലായിടത്തും ഇപ്പം അത് മാത്രമേ കാണാനുള്ളൂ ഫാഷൻ ട്രൻഡ്കൾ ശരിക്കും സാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം വസ്ത്രധാരണ രീതി സിനിമാസ് കഥാപാത്രങ്ങളുടെ നിങ്ങളിഷ്ടപ്പെടുന്ന സാധാരണ നാടൻ സിനിമകളിലേക്കാണ് കൂടുതലായിട്ടും എന്നാ അകലം പാലിച്ചു ഇപ്പം ആൾക്കാർ വരുന്നത് അതുപോലെത്തന്നെ ഇടി അങ്ങനെയുള്ള കൂടുതൽ കൊലപാതകം ഭീഷണി ഭീകരത അങ്ങനെ നേരിടുന്ന ഒരു വലിയൊരു എന്നാ സ്വാധീനിച്ച് കുട്ടികളുടെ ഇടയ്ക്കാണെൽ പോലും സ്വാധീനം ചെലുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഞാനൊരിക്കലും സിനിമയെ അനുകരിക്കുന്ന ഒരാളല്ല സിനിമ രീതികളിൽ ചിലപ്പോൾ പോസിറ്റീവ് ഉണ്ടെങ്കിലും അതിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഒരു നെഗറ്റീവ് രീതിയിൽ ഞാനൊരിക്കലും ഇതിനെ സമീപിച്ചിട്ടില്ല ഇവിടുന്നൊരു വസ്ത്രധാരണ രീതി എനിക്ക് സ്വന്തമാക്കാനായിട്ട് ഒരു താല്പര്യവും ഇല്ല ശരിക്കും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ തന്നെ ഒരു സിനിമ എത്ര മാത്രമാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത് മാർക്കോ എന്ന് പറഞ്ഞ ഒരു സിനിമ ഈയിടയ്ക്ക് ഇറങ്ങിയെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല അത് ഒരുപാട് സ്വാധീനം ചെലുത്തി എന്ന് പല മാസികകളിലും പത്രങ്ങളിൽ ആർട്ടിക്കിൾലൊക്കെ ഇടക്ക് കാണാനായിട്ട് സാധിച്ചു കൂടുതലും വയലൻസിലേക്ക് കുട്ടികൾ നീങ്ങുന്നതിൻ്റെ കാരണം ഈ സിനിമേടെ സ്വാധീനമാണെന്ന് പറയാനായിട്ട് സാധിക്കും എന്താണോ കാണുന്നത് അത് മാത്രമാണ് ഇന്നത്തെ തലമുറ സ്വന്തമാക്കുന്നത് അപ്പം ഇതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ടായിരിക്കും ഒരു പക്ഷെ ഈ സിനിമയെ അതേപടി തന്നെ അനുകരിക്കാനും അതിൻ്റെ പിന്നാലെ പോകുവാനും തിന്മയെ കൂടുതലായിട്ട് ആകർഷിക്കാനും തിന്മയിലേക്ക് കൂടുതൽ അടിപതറി വീഴാനായിട്ടൊക്കെ തുടങ്ങുന്നത് അതിൻ്റകത്ത് എത്ര മാത്രം തിന്മയുണ്ടെന്ന് ഭീകരതയുണ്ടെന്ന് കാണുമ്പോൾ അതിൽനിന്ന് പിന്മാറാനായിട്ടായിരുന്നു സാധാരണ എല്ലാവരും ശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റകത്തൊരു ഭീകരത ഇത് എനിക്കും സ്വന്തമാക്കാൻ പറ്റും അതായത് ഒരു നന്മ എത്രമാത്രം സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുപോലത്തന്നെ ഒരു തിന്മയെ ഒരു ഭീകരതയെ സ്വന്തമാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം ആൾക്കാർ എന്നാ കുട്ടികളൊക്കെ മുന്നോട്ട് പോവുന്നത് ശരിക്കും ഒരു വൈലൻസ് ഒക്കെ കണ്ട കണ്ണടച്ചിരുന്ന അല്ലെങ്കിൽ ഈ വയലൻസിന് ഇത്ര മാത്രം പൈസ കണ്ട എത്ര മാത്രം പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി ഇപ്പം ശരിക്കും വയലൻസ് സ്വന്തം അങ്ങനൊരു പേടിയൊന്നും ഇല്ല എല്ലാവരും ഒരേ ലെവൽലേക്ക് തന്നെ നീങ്ങുന്നതായിട്ട് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അതുപോലെത്തന്നെ വസ്ത്രധാരണ രീതിയാണെങ്കിൽപ്പോലും ഓരോ സിനിമേൻ്റെ പേരിൽത്തന്നെ ഞാനൊക്ക കുഞ്ഞായിരിക്കുമ്പോൾ ഓർക്കുന്നുണ്ട് അനാർക്കലീ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ചുരിദാറ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പം അതിനനുസരിച്ച് കുഞ്ഞാടെന്ന് പറഞ്ഞ് ഒരു ചുരിദാറ് അങ്ങനെയൊക്കെ വ്യത്യസ്തമായ വസ്ത്രങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അല്ല ഓരോ സിനിമയ്ക്കനുസരിച്ച് ഓരോ ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങുന്നു അതിനനുസരിച്ച് വാങ്ങാനും ആ ഒരു ഫാഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അതാണ് അതിൻ്റെ ആ സമയത്തെ ട്രെൻറ്റ് ഞാൻ കുറ്റം പറയാനും പറ്റത്തില്ല ഒരു പക്ഷേ നല്ലതാണെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് നന്മയും അതിൻറ്റകത്ത് കാണാനും സാധിക്കുന്നുണ്ടാവും